അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ അധികം ഒന്നും അനുഭവി അഭിമുഖീകരിക്കാറില്ല എന്നാലും ചെറുതായിട്ട് ഒക്കേ ട്രാഫിക് സംബന്ധമായ ഗതാഗത സൗകര്യങ്ങളേ കുറിച്ചും പിന്നേ റോഡും റോഡ് ഒക്കേ വളരേ മോശമായാണ് ഇപ്പോൾ മഴ പെയ്യുന്നതോട് കൂടി ഓക്കേ കുണ്ടും കുഴിയും ഒക്കേ വളരേ കൂടുതലായി വന്നുകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നേ വാഹനത്തിൻറ്റെ ഷോക്ക് അബ്സോർബറും മറ്റും നമ്മുടെ ശരീരത്തിൽ അത് വളരേ ബുദ്ധിമുട്ടായിക്കൊണ്ട് ഇരിക്കുകയാണ് മാത്രമല്ലാ സൗകര്യങ്ങളേ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഇതൊക്കേ തന്നെയാണ് റോഡിൻ്റെ അവസ്ഥയും മറ്റും പിന്നേ പലയിടങ്ങളിലും ഹമ്പുകൾ ഒന്നുമില്ലാ അതുകൊണ്ട് തന്നേ പറയുക കാൽനട യാത്രക്കാർക്ക് ഒക്കേ സുരക്ഷാ പ്രശ്നങ്ങളും വളരേ അധികമുണ്ട് മാത്രമല്ലാ ട്രാഫിക് സംബന്ധമായ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ജംഗ്ഷനിലൊക്കേ തന്നേ സിഗ്നലുകളും മറ്റും ഇല്ലാത്തത് കൊണ്ട്തന്നേ വളരേ ബ്ലോക്കുകളും കാര്യങ്ങളും ഒക്കേ വളരേ അധികം വർദ്ധിച്ചു കൊണ്ടിരിക്കും അങ്ങനത്തേ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ